റസ്റ്റോറൻറ് അല്ലേ ഞാൻ ഇന്ന് അവിടെ എന്തൊക്കെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നേ ഹാ ആ അതെ അതെ അതെ അല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് ലഞ്ച് ആ സദ്യ ആണെങ്കിൽ സദ്യയിൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉള്ളത് ആ അത്രയും ഐറ്റംസ് ഉണ്ടോ പായസം ഒക്കെ ഉണ്ടോ രണ്ട് തരമുണ്ടോ ആ ഹാ ഹാ പിന്നെ ബിരിയാണി ഐറ്റംസ് ആണെങ്കിലോ ആ ചിക്കനും ബീഫും അല്ലേ പ്രോൺസ് അങ്ങനെയൊന്നും ഇല്ലേ ഓ നാളെ ഉണ്ടാവുള്ളോ ആ ആ ഓക്കേ അപ്പം ഞങ്ങൾ കുറച്ച് പേർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നേ ആ ഒ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോളത്തേക്കും ഞങ്ങൾ ഒരു അമ്പത് പേരുണ്ട് അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ജ്യൂസ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ടോ ആ ആ ഓക്കേ ഓക്കേ

ആ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ഒരു ഉ ഉച്ച ആവുമ്പോഴത്തേക്കും വരാം കുഴപ്പം ഇല്ലല്ലോ അല്ലേ അമ്പത് പേർക്കുള്ള ഫുഡ് ഉണ്ടാവില്ലേ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ